എനിക്കങ്ങനെ ഫേവററ്റ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂ്മെൻറ് അങ്ങനൊരു ഫേവററ്റ് ആയിട്ടൊന്നും ഇല്ല പക്ഷേ പലതരം ആർട്ട് ഫോംസ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് വിൻസെൻ വാൻങ്കോങ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പുള്ളിയും പിന്നെ അതല്ല അതുപിന്നെ ഇമ്പപ്രഷനിസം എന്ന് പറഞ്ഞൊരു ആർട്ട് ഫോമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആർട്ട് ഫോംസും പിന്നെ പുള്ളിയുടെ ആർട്ട് വർക്സും ആർട്ട് വർക്ക്സ് കാണുമ്പോൾ ഒരു എന്താ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നും എന്നുവെച്ചാൽ വിൻസൻ്റെ ഒരു വിൻസൻ്റെ ബോൾഡ് കളേഴ്സിൻറെ യൂസേജും എന്ന് വെച്ചാൽ ആ പുള്ളി ഉപയോഗിക്കുന്ന കളർ കളർ പാറ്റേൺസും അതല്ല അത് പിന്നെ പെയിൻറിങ്ങിൽകൂടെ വരുന്ന ഇമോഷൻ പെയിൻറിങ്ങിൽകൂടെ വരുന്ന ഫീലിംഗ്സ് അത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇൻസ്പയർ ആവാൻ തോന്നും എന്ന് വച്ചാൽ പുള്ളിയുടെ സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ് ഉണ്ട് അത് കാണുമ്പം അത് കാണുമ്പോൾ നമുക്ക് തോന്നും ആ ആട്ട് കാണുമ്പോൾ നമുക്ക് തോന്നും പിന്നെ ഇത് വേർഡ്സ് മാത്രമല്ല ഇതുപോലെ ഇതുപോലെ നമുക്ക് ഇതുപോലത്തെ ഒരു ഡ്രോയിങ്സ് അതേപോലെ വേറെ തരം വിഷ്വൽസ് ബന്ധപ്പെട്ട് എങ്ങനെ നമക്ക് നമുക്ക് വേറെ ആൾക്കാരുടെ ഇമോഷൻസ് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഇതുപോലെ പെയിൻറിങ്സ് നമ്മളെ എനിക്ക് കാണുമ്പം എനിക്ക് തോന്നാറുണ്ട് അതല്ലാത പിന്നെ സാൽവഡോർ ഡാലി എന്ന് പറഞ്ഞ ഒരു പെയിൻ പെയിൻറർൻ്റെ പുള്ളിയുടെ ഒരു പുള്ളിയുടെ പെയിൻറ്റിങ് സ്റ്റൈലും നല്ലൊരു പെയിൻറ്റിങ് സ്റ്റൈല എന്ന് വച്ചാൽ പുള്ളിയുടെ പെയിൻറ്ററിങ് സ്റ്റൈൽ ഒരു ഫ്ലൂയിഡും പിന്നെ ഭയങ്കര ഡ്രീം എന്ന ഒരു സ്വപ്നം പോലെ ഒരു സ്വപ്നത്തിൽ കാണുന്ന പോലത്തെ പെയിൻറ്ററിങ്സ് പോലെയാണ് പുള്ളിയുടെ പെയിൻറ്റിങ്സ് അത് അതിന് സറിയലിസം എന്ന് പറയും എന്ന് വെച്ചാൽ ഇത് നമ്മൾ നമ്മൾ നമ്മളുടെ റിയലിസം റിയലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നമ്മുടെ ലോകത്തിൽ എന്ത് കാണുന്നോ അതേപോലെത്തന്നെ പെയിൻറ്റ ഇയിരിക്കും സറിയലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന അപ്പുറം എന്ത് എന്ത് വരയ്ക്കാം എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ്ലി മാറ്റിമറിയ്ക്കുന്ന ഒരു പെയിറ്ററിങ് സ്റ്റൈലാണ് സർവിയലിസം പിന്നെ ആർട്ട് മൂവ്മെൻറ്സ് എന്ന് പറഞ്ഞാൽ ഇംപ്രഷനിസം എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട് അതിനും ഒരു എനിക്കൊരു സോഫ്റ്റ് സ്പോട്ടൊണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മൊമെൻറ് ക്യാപ്ചർ ചെയ്യും എന്നിട്ട് അത് വെച്ച് വെട്ടവും കളറും വെച്ച് കളിക്കുന്നു അങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വെട്ടവും കളറൊക്കെ നമുക്കിഷ്ടം ഉള്ള രീതിയിൽ ഉപയോഗിച്ച് കംപ്ലീ ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ്ലി ഉപയോഗിച്ച് നമ്മൾ ഒരു നമ്മളിപ്പം സാധാരണ ഒരു ദിവസം നടക്കുന്ന നമ്മൾ സാധാരണ ഒരു ദിവസംത്തേകൂടെ പോവുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു മൊമെൻറ് എക്സ്പീരിയൻസ് തന്നോർത്തോ ആ ഒരു ചെറിയൊരു മൂമെൻറ് നമുക്ക് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത് അത് വരയ്ക്കുക അല്ലെങ്കിൽ അത് ഡ്രോ ചെയ്യുക അതാണ് ഇമ്പ്രഷനിസം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സംഭവം നമ്മൾ ഇതുപോലത്തെ ഒരു നമ്മൾ നമ്മൾ സാധാരണ ഒട്ടും ഒന്നും ഒട്ടും നോട്ടീസ് ചെയ്യാത്ത ഒരു സംഭവം പെട്ടെന്ന് ഒരു പെയിൻറ്ററിങ്ങിൽ ഒരു നമ്മൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രെസ് ചെയ്യുമ്പം നമുക്ക് ഒരു നമുക്ക് നമ്മളെ ഉള്ളിൽ എന്തോ പോലെ തോന്നും അതല്ലാതെ പിന്നെ അബ്സ്ട്രാക്റ്റ് എക്സ്പ്രഷനസ് എന്ന് പറഞ്ഞ് വേറൊരു പെയിൻറിങ് മൂ്മെൻറ് ഉണ്ട് അത് എന്ന് പറച്ചാ വരയ്ക്കുന്നതല്ല ആ ആ ഡ്രോയിങ്ങിനകത്ത് ഇമോഷനാണ് മെയിനാക്കി എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളാ പെയിൻറിങ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലോടെ നമുക്കത് വ്യൂ ചെയ്യാം എന്ന് വെച്ചാൽ ആബ്സ്ട്രാക്റ്റ് എന്ന് ഓർത്താൽ അതാ അതിനൊരു കറക്റ്റ് മീനിങ്ങില്ല ഒരു പെയിൻറിങ്ങിന് ഒരു കറക്റ്റ് മീനിങ്ങില്ല ആ പെയിൻറ്റിങ്ങില് നമക്ക് ഇഷ്ടം നമ്മൾ ഈ പെയിൻറ് ചെയ്ത് കാണുന്നവർ ഈ കാണുന്നവർക്ക് അവർക്ക് എന്താ തോന്നുന്നത് അതാണ് ശരി എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ട് ആ ആ അഭിപ്രായം അത് ആ ഒരു അഭിപ്രായം അവരുടെ സ്വന്തമാണ് അതുപോലത്തെ രീതിയിലാണ് ആബ്സ്ട്രാക്റ്റ് എക്സ്പ്രഷനിസം അപ്പം ഇതുപോലത്തെ പെയിൻറ്റിങ്സ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് എന്താ പെയിൻറ്ററിങ്സ് ഒക്കെ ഇനി ഇഷ്ടപ്പെടും അത് അത് അതുപോലെ ഇതുപോലത്തെ പെയിൻറ്ററിങ്സ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ എല്ലാ എല്ലാ പെയിൻറ്റിങ്ലും കഥയുണ്ട് ആ കഥ ആ കഥ കാണും അല്ലെങ്കിൽ ആ ആ നമ്മൾ ആ പിക്ചറുകൂടെ കാണുന്ന കഥ നമുക്ക് എന്തൊക്കെയോ ഇമോഷൻസ് കൊണ്ടുവരുന്നു അതുപോലത്തെ സംഭവം ഒക്കെ ഇതുപോലെ പെയിൻറ്ററിങ്സില് ഇതിലെ ഈ പെയിറ്ററിങ്സിലെ ഇപ്പോൾ ഭയങ്കര ഡീറ്റെയ്ൽ ആയിട്ടൊള്ള ഇപ്പോൾ കാർക്കച്ചറ് അല്ലെങ്കിൽ എന്താ പ്രകൃതിയിലെ പ്രകൃതിയിലെ ഓരോരോ മൊമെൻസ് വരയ്ക്കുന്നത് അതും ഇല്ല പിന്നെ നമ്മൾ ഓരോരോ യുണീക്ക് ആയിട്ടുള്ള ആംഗിൾസില് വരയ്ക്കുന്ന ഓരോരോ പെയിൻറ്ററിങ്സും അതെല്ലാം കാണുമ്പോൾ നമുക്ക് വേറെ വേറെതരം വേറെ തരം ഇമോഷൻസാ നമുക്ക് നമ്മൾ മനസ്സിലൂടെ പോകുന്നത് അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ് പെയിൻറ്റിങ് അത് അതേ സമയത്ത് മിനിമലിസ്റ്റ് അല്ലേൽ മോണോക്രോമാ മിനിമലിസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരുതരം ചാമുണ്ട് എന്ന് വെച്ചാൽ മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലാണ് ഫോക്കസ് ഡീറ്റെയ്ൽ ചെറിയ രീതിയിൽ വരയ്ക്കുക എന്നല്ലാതെ അത് നമുക്ക് അതിനെ ഡീറ്റെയ്ൽ എക്സ്ട്രാ ഫോക്കസ് കൊടുക്കുന്നതാണ് മിനിമലിസം പിന്നെ ആർട്ട് എന്ന് പറയുവാണെങ്കിൽ കാണുന്നതല്ല അതിനുള്ളിൽ നമുക്ക് ഫീല് ചെയ്യുന്നേന്നാണ് ആർട്ട് അതാണ് എൻ്റെ ഒരു അഭിപ്രായം